കുഞ്ഞുമൃഗങ്ങള്ക്ക് മൂന്ന് മാസം വരെ പശുവിന് പാൽ മാത്രം നല്കുക മൂന്ന് മാസത്തിനു ശേഷം തീറ്റയും ഭക്ഷണവും നല്കുക പിന്നെ മൃഗങ്ങ മൃഗഡോക്ടറെ കാണിച്ചിട്ട് പ്രോട്ടീന് പൗഡറും എല്ലാം നല്കുക പിന്നെ ഇടക്ക് ഇടക്ക് കുഞ്ഞുങ്ങളെ വൃത്തിയായി കുളിക്കുക കുളമ്പു രോഗം വരാതെ ശ്രദ്ധിക്കുക ചാണകവും കിടപ്പാടവും വൃത്തിയായി സൂക്ഷിക്കുക ഇടക്ക് ഇടക്ക് ഡോക്ടറെ കാണിച്ചിട്ട് അസുഖങ്ങളും കാര്യങ്ങളും ഇല്ലാതിരിക്കുക മൂന്ന് മാസം മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ കുത്തി വയ്പ് നടത്തുക അത് നല്ലയിനം പശുവിന്റെ ബീജം കുത്തിവെച്ച് നല്ലയിനം പശുക്കിടാങ്ങളെ വരുത്തുക അതിനുശേഷം നല്ലവണ്ണം പശുക്കളെ ശ്രദ്ധിച്ചു വളര്ത്തുക അതിന് നല്ല തീറ്റയും പ്രോട്ടീന് പൗഡറും എല്ലാം ഗര്ഭ സമയത്ത് നല്കുക മൃഗങ്ങളെ സ് ആലയും മറ്റു പരിസരവും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുക നമ്മുടെ അടുത്ത് ഇപ്പോളുള്ളത് നമ്മുടെ അടുത്ത് ഇപ്പം ഉള്ളത് നാടന് പശുവും സിന്ധി പശുവും മത്രമേ നമ്മള്ക്ക് ഉള്ളൂ അതുകൊണ്ട് നല്ല ഇനം പശുക്കളെ വളര്ത്തി വലുതാക്കാന് നോക്കുക ഭക്ഷണവും എല്ലാം നല്കി നല്ല ഉഷാറായി പശുക്കളെ വളര്ത്തി എല്ലാ രോഗങ്ങളിലും ഡോക്ടറെ കാണിച്ചു ഉറപ്പു വരുത്തുക